മലയാള ഭാഷയെ സംരക്ഷിക്കാൻ ഇപ്പോൾ സമൂഹത്തിൽ സാധാരണ കണ്ടു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്കൂളുകളിലും മലയാളം മീഡിയം തന്നെ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് ഇപ്പോൾ മലയാളം മീഡിയത്തിൽ കുട്ടികൾ പഠിക്കുന്നതോടുകൂടി അവർക്ക് മലയാള ഭാഷയിലെ കുറെ മുന്നോട്ട് നീക്കാൻ സാധിക്കും പിന്നെ മലയാള ഭാഷ എല്ലാവരും ഓൾറെഡി സംസാരിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ മലയാള ഭാഷ മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട് പിന്നെ പുറമെനിന്നിപ്പോൾ എന്താപറയുവാ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാലും അവർ മലയാളമൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ സാധാരണ തൊഴിലൊക്കെ ചെയ്യുന്നത് അങ്ങനെ മലയാളം ആൾമോസ്റ്റ് എല്ലാവരും തന്നെ സംസാരിക്കനും പഠിക്കാനുമൊക്കെ തുടങ്ങി അപ്പോൾ മലയാള ഭാഷ ഇങ്ങനൊക്കെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നിലനിന്നു വരുന്നത് അപ്പോൾ അവർക്ക് കൂടുതലും മലയാള ഭാഷ സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പോൾ മലയാള ഭാഷ പഠിക്കുന്നതിന് കൂടുതലും ഇങ്ങനൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് കൂടുതലായിട്ടും സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മലയാള ഭാഷ കൂടുതലായിട്ടും നമ്മൾ കണ്ടു വരുന്നത് എന്നാൽ ഇന്ന് സമൂഹത്തിൽ എല്ലാവരും മലയാള ഭാഷ സംസാരിക്കയും ഇവിടെ കേരളം സംസ്ഥാനത്തിന് മൊത്തമായിട്ട് മലയാള ഭാഷ തന്നെയാണ് സംസാരിക്കയും അവരെ ആശയവിനിമയത്തിനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പുറത്തുന്ന് വരുന്നവരും മലയാള ഭാഷ പഠിച്ച് സംസാരിക്കുന്നുണ്ട്